എൻ്റെ പേര് അശോക് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എനിക്കാദ്യമായി കിട്ടിയ സമ്മാനമായ പേനയെ ഒരു പേനയെക്കുറിച്ചാണ് ഞാൻ പത്ത് ജയിച്ചപ്പോൾ എനിക്കൊരു ബന്ധു സമ്മാനം തന്ന ഒരു പേനയാണ് പാർക്കർ പേന ആയിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് തോന്നിയ കുറച്ച് നല്ല കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പോൾ ആ പേന ഒരു സാധാരണ ബോൾ പെൻ ആയിരുന്നു അപ്പോൾ അതിൽനിന്ന് സാധാരണ പേനയിൽ നിന്നുള്ള വ്യത്യാസം പറയുന്നത് അതിൻ്റെ സ്മൂത്ത്നെസ്സ് ആണ് ഇപ്പോൾ മറ്റേ പേന ഒക്കെ വെച്ച് കുറച്ച് നേരം എഴുതിക്കഴിയുമ്പോഴേക്കും കൈ വേദന എടുക്കാറുണ്ടായിരുന്നു എനിക്ക് ഈ പേന ഉപയോഗിച്ച് തുടങ്ങിയതിൽപ്പിന്നെ എനിക്ക് ആ പ്രശ്നം തോന്നിയിട്ടില്ല നല്ല സ്മൂത്ത് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുളളത് പിന്നെ ഈ മറ്റേ പേനയുടെ മാതിരി ഇടയ്ക്കിടയ്ക്കും മഷി തീരുന്നില്ല ഇതിൻ്റെ മഷി കുറേ കാലം നിൽക്കുന്നുണ്ട് ഇതിന് ബാക്കി പേനയേക്കാൾ പൈസ കൂടുതലാണെങ്കിലും ആ കൊടുക്കുന്ന പൈസക്കുള്ള ഗുണം ഈ പേനയ്ക്ക് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത് പിന്നെ ഇത് എല്ലാ നിറത്തിലും കറുപ്പ് കളറ് മഷിയായാലും നീല കളറിലും വേണമെങ്കിൽ ചുവപ്പ് കളറിലൊക്കെ ലഭ്യമാണ് അപ്പോൾ ഇനി അത് ബോൾ പെന്ന് പോര എങ്കിൽ മഷി നിറച്ച് ഉപയോഗിക്കുന്ന ഫൗണ്ടൻ പെന്നും ഇവർക്കുണ്ട് വളരെ നമുക്ക് സമ്മാനം കൊടുക്കാനൊക്കെ പറ്റിയ ഒരു സാധനമായി ഈ പേന നമുക്ക് ഉപയോഗിക്കാം ഇതിനേക്കാൾ നല്ല സമ്മാനം നമുക്ക് ടീച്ചറുമാർക്ക് കൊടുക്കാൻ തന്നെ ഉണ്ടാവില്ല ഒരുവിധം എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു സമ്മാനവും കൂടെയാണ് ഈ പേന അപ്പോൾ പൊതുവേയുള്ള പേനയേക്കാൾ എനിക്ക് വളരെ ഇഷ്ടം തോന്നിയ ഒരു പേനയും കൂടെയാണിത്